ആരാണ് ഇവിടെ ജാക്ക് ഫ്രൂട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പറയാം റേറ്റ്

മധുരം കൂടിയത് കൂര വേണോ വരിക്ക വേണോ ഏത് വേണം വരിക്ക

നിങ്ങൾക്ക് എത്ര കിലോയാണ് ആവശ്യം പഴം റോബസ്റ്റ് ഞാലിപ്പൂവൻ കപ്പ ഏത്തൻ ഏ അത് കിലോ ഒരു മുപ്പത് നാൽപ്പതെക്കെ വരൂ ഓ അതിന് റേറ്റ് കുറവാണ് പഴത്തിൻ്റെ മോഡൽസാണോ പറയുന്നത് ഐറ്റംസ് പല വെറൈറ്റി ഐറ്റംസ് ആ അത് ഇതൊക്കെ തന്നെ റോബസ്റ്റ് കപ്പ ഉണ്ട് ഏത്തൻ ഉണ്ട് ആ ഉണ്ട് ആ അല്ല പഴം എത്ര കിലോ വേണം ആ പപ്പായ ഒരു കിലോ നൂറ്റി അമ്പത് രൂപയെ ഉള്ളു ആ ചൊമന്ന പപ്പായ ഉണ്ട് കുരു ഇല്ലാത്തത് നാച്ചുറലായത് കൊണ്ട് കാണും കുരു കാണും കുരു ഇല്ലാത്തത് അത് ഇവിടെ ചോദിക്കേണ്ടി വരും ആ നീളം കൂടിയ മാങ്കോ ഉണ്ട് പിന്നെ ചെറിയ മാങ്കോ പഴുത്ത ചെറിയ മാങ്ങോ ഉണ്ട് ചെറിയ സൈസ് പിന്നെ ഒരു മിഡ് റേഞ്ച് സൈസുണ്ട് പിന്നെ നല്ല വലുതും നല്ല വലിയ മാങ്ങയുണ്ട് അ ചെറുതാണ് സാധാരണ നാട്ടിലൊക്കെ ഉള്ള മാങ്ങ പിന്നെ ഏതാണ് മാങ്കോ വേണമെങ്കിൽ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ മാങ്കോ ഉണ്ട് ആ അത് കിലോ ഒരു നൂറ്റി അമ്പത് അത്രയൊക്കെ വരും ആ ആഫ്രിക്കാൻ ആണെങ്കിൽ ഒരു നാനൂറ്റി അമ്പത് രുപയാവും അത് നമ്മൾ ഇമ്പോട്ട് ചെയ്യുന്നതല്ലേ ആ കഴിക്കാൻ ടേസ്റ്റാണ് മധുരം കൂടു നല്ല മധുരമുണ്ട് നല്ല കൂടുതലാണ് നിറവും കൊള്ളാം മാങ്ങയുടെ പുറമൊക്കെ കാണാൻ നല്ല ഭംഗി ഒക്കെയാണ് പിന്നെ കഴിക്കുമ്പം നല്ല മഞ്ഞയും ഓറഞ്ചും കൂടെ മിക്സ് ആയത് ടോട്ടൽ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു രണ്ടായിരം അടുപ്പിച്ചു ആവും ആ ക്യൂ ആർ കോഡ് ബില്ല് കൊടുക്കണം അവിടെ പോയാൽ മതി ആ ആ നിങ്ങൾ നടന്നോ